ഞങ്ങളുടെ പള്ളിയുടെ പേര് ലിറ്റിൽ ഫ്ലവർ കൊളച്ചുർ കൊളത്തൂർ ചർച്ചെന്നാണ് വിശ്വ കൊച്ചുത്രേസിയായുടെ നാമധേയത്തിലുള്ള പള്ളിയാണ് ഇവിടെ ദിവസവും വിശുദ്ധ കുർബ്ബാന നടക്കാറുണ്ട് അതു രാവിലെ ആറെ കാൽ ആറരക്ക് സപ്രായേം അതെ തുടർന്നു വിശുദ്ധ കുർബ്ബാനയും സ ഉണ്ട് ഞങ്ങൾ മാക്സിമം എല്ലാ ദിവസവും പോകാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് വിശുദ്ധ കുർബ്ബാനയെ സംബന്ധിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ സാധിക്കുന്നുണ്ട് അതു പോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന ബുധനാഴ്ച ദിവസം ഞങ്ങൾക്ക് മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയും ചൊവ്വാഴ്ച ആദ്യ ചൊവ്വാഴ്ച വിശുദ്ധ അന്തോണിസിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയും ഉണ്ട് അതു പോലെ തന്നെ എല്ലാ പെരുന്നാളുകളും യൂദാസ്ലിഹായുടെ പെരുന്നാളും കൊച്ചുത്രേസ്യാമ്മയുടെ പെരുന്നാളും അതു പോലെ തന്നെ ഔസേപിതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന അ അ ഔസേപിതാവിൻ്റെ മധ്യസ്ഥ തിരുന്നാളും അൽഫോൺസാമ്മയുടെ മധ്യസ്ഥ തിരുന്നാളുമെല്ലാം ഞങ്ങളിവിടെ കൊണ്ടാടാറുണ്ട് എല്ലാ ഇതിലും ഞങ്ങളുടെ അച്ഛൻ നല്ല പ്രാതിനിധ്യം വഹിക്കുന്നുണ്ട് അച്ഛൻ്റെ ഒരു ശുഷ്കാന്തി കൊണ്ടു മാത്രമാണ് ഞങ്ങളുടെ പള്ളിയിൽ ഇത്രയും ആഘോഷങ്ങൾ നടക്കുന്നത് അതുപോലെ വലിയ പെരുന്നാളായിട്ടു ഞങ്ങൾ ആഘോഷിക്കുന്നത് അൽഫോൺ വിശുദ്ധ കൊച്ചു ത്രേസ്യാമ്മയുടെ തിരുന്നാളാണ് അതു വ്യാഴാച്ച കൊടിയേറി വെള്ളിയാ ഞായറാഴ്ച തിരുന്നാൾ നടത്തുന്നു അതുപോലെ തന്നെ ഒത്തിരി പരിപാടികളൊക്കെ കുട്ടികളുടെ കലാപരിപാടികളും ഞങ്ങൾ മാതാക്കളുടെ പരിപാടികളും അതു പോലെ തന്നെ സൺഡേ സ്കൂളിൻ്റെ പരിപാടികളും ഇടവകജനത്തിൻ്റെ പരിപാടികളും ഒക്കെ അതേ തുടർന്ന് നടത്താറുണ്ട് പിന്നെ ക്രിസ്മസിന് ഒക്കെ ഞങ്ങൾക്ക് വലിയ ആഘോഷമായ പരിപാടികളാണ് ഇവിടെ നടത്തുന്നത് എല്ലാ കൂട്ടായ്മയിൽ നിന്നും വാർഷികമൊക്കെ വെച്ച് അവരാ അതിനെ സംബന്ധിച്ച് പിന്നെ ബൈബിളിൻ്റെ ഒരു പരിപാടി ഒക്കെ നടത്താറുണ്ട് അതുപോലെ ത ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ വിശുദ്ധ കുർബ്ബാനയെ സംബന്ധിക്കാൻ പോകുന്നുണ്ട് പിന്നെ ഏറ്റവും ഞങ്ങൾ ആസ്വദിക്കുന്നതായിട്ടുള്ളത് ഞങ്ങളുടെ അച്ഛൻ്റെ കുർബ്ബാനയാണ് ആ കുർബ്ബാന എല്ലാ തരത്തിലും ഞങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അച്ഛൻ എല്ലാ എല്ലാ ദിവസവും നല്ല പാട്ടോടു കൂടി ഉള്ള വിശുദ്ധ കുർബ്ബാനയാണ് ഞങ്ങൾക്ക് അനുഷ്ഠിച്ച് തരുന്ന അനുഷ്ഠിക്കുന്നത് അതു പോലെ തന്നെ ഞങ്ങൾ വിശുദ്ധ അച്ഛൻ്റെ ഒപ്പം കൂടി ചേർന്നു പാടുവാനായിട്ട് ഞങ്ങൾക്ക് പ്രാക്ടീസ് തരികയും ഞങ്ങളതിൽ വളരെ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളോട് പിന്നെ അ തു പോലെതന്നെ ഓരോ ദിവസങ്ങളിലും ഞങ്ങളെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങൾക്കു വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും അച്ഛൻ തന്ന് ഞങ്ങളെ ഇതിൽ കൂടുതൽ വിശ്വാസപൂർവ്വം ഞങ്ങൾ സംബന്ധിക്കുന്നതിനു വേണ്ടി ഞങ്ങൾക്കൊത്തിരി പ്രചോദനം തരുന്നുണ്ട് അതു പോലെ തന്നെ ഞങ്ങൾ